ഇത് മൃഗാശുപത്രി അല്ലേ അ ഡോക്ടർ അജി എൻ്റെ പട്ടിക്ക് ഭയങ്കരമായിട്ട് രോമം കൊഴിച്ചിലും പിന്നെ രോമം കൊഴിഞ്ഞിട്ട് ഇങ്ങനെ ചോരയൊക്കെ വരികയാണ് അ ഇതിനുമുന്നെ ഒരുവട്ടം കൊണ്ടു വന്നായിരുന്നു പക്ഷെ എന്നിട്ടും കുറവൊന്നുമില്ല

ആദ്യത്തെ രണ്ടാഴ്ച വലിയ കുഴപ്പം ഇല്ലായിരുന്നു അതുകഴിഞ്ഞു മാറി വന്നതായിരുന്നു പക്ഷെ അത് പിന്നെയും ഇതായി കൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറച്ചു കൂടി അ ഒരു മാറ്റവും വരുന്നില്ല പഴുത്തിട്ട് രണ്ടു മൂന്ന് ആഴ്ച ഇത് കുഴപ്പില്ല പിന്നെ ഇത് ഇങ്ങനെ വന്നു കൊണ്ടിരിക്കുവാണ് അ കുറച്ചു ഓയിൻമെൻറ്റ് ഒക്കെ ആയിരുന്നു അ അത് ഞങ്ങൾ ഇതിനെ ഉപ്പു വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി പിന്നെ കുറച്ചു പച്ച വെള്ളമൊക്കെ കൂട്ടി കഴുകി ഒന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ വെള്ളമെല്ലാം പോയിട്ട് പിന്നെ ഇത് തേച്ചു കൊടുക്കുകയാണ് ചെയ്തു കൊണ്ടിരുന്നത് പിന്നെ രാവിലെ ആകുമ്പോൾ ഇത് കഴുകിക്കളയാനും പറഞ്ഞായിരുന്നു ഗുളിക ഞങ്ങൾ പാലിലൊക്കെയാണ് കലക്കി കൊടുത്തു കൊണ്ടിരുന്നത് മ്മ് ഒരു ദിവസം അത് ഡേറ്റ് പറയാൻ പറ്റുമോ ഡോക്ടറെ ഇത് ഇപ്പം കുറച്ചു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു അ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഒരു ശനിയാഴ്ചയൊക്കെ ആയിട്ട് പോന്നാൽ പോരേ അ ഓക്കെ ഓക്കെ ഇത് പട്ടിക്ക് ഇപ്പം കുറച്ചു വിഷയമായിപ്പോയി അതാട്ടോ അ ഇതിന് നല്ല വേദനയും കൂടി ഉണ്ട് പട്ടിക്ക് ഇപ്പം നല്ല വേദന ഉണ്ട് ആ ഓക്കെ ഓക്കെ അ രോമം പൊഴിഞ്ഞു പോകുന്നുണ്ട് അ മുറിവുപോലെ ആകുന്നുണ്ട് അ ഓക്കെ ഡോക്ടർ ഓക്കെ അ ഓക്കെ അ ഓക്കെ ഡോക്ടർ ഓക്കെ അ അ ഓക്കെ ഡോക്ടർ ഓക്കെ ശ്രദ്ധിച്ചോളാം ശ്രദ്ധിച്ചോളാം അ ഡോക്ടർ ഞാൻ എന്നാൽ ശനിയാഴ്ച വരാട്ടോ അ ഓക്കെ താങ്ക് യു